ആ എന്താ ചെയ്തത് ആ ഓക്കെ മിട്ടായി തെരുവ് ഓക്കെ ആ ഓക്കെ അത് ഇപ്പോൾ സാർ എവിടെയാണ് ഉള്ളത് അടിവാരത്ത് ആണ് അല്ലേ അപ്പം നമ്മള് അവിടെ വന്നിട്ട് സാറിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് മിട്ടായി തെരുവ് മാത്രം ആണോ പോവാനുള്ളത് മിട്ടായി തെരുവിന് മാത്രേ ഉള്ളൂ വേറെ എങ്ങോട്ടേലും ഓട്ടം ഉണ്ടോ

ഓക്കെ അപ്പം ഞാൻ എപ്പത്തേക്കാണ് എത്തണ്ടത് പത്ത് മിനിറ്റിന് ഉള്ളില് ഞാൻ ഇപ്പം ഉള്ളത് ഓക്കെ ഞാൻ താമരശ്ശേരി ആണ് ഉള്ളത് അടിവാരത്തേക്ക് എത്താൻ ഒര് ആ ഓക്കെ ഒര് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ഉള്ളില് എത്താൻ ശ്രമിക്കാം സാർ ആ സാർ ഒറ്റയ്ക്ക് ആണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടാവോ ഓക്കെ അപ്പോൾ നമ്മള് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വരാം പിന്നെ വേറെ എവിടേക്ക് എങ്കിലും അപ്പം ഓട്ടം ഉണ്ടോ നമ്മള് വീട്ടില് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് ഒരോ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം ലോകം അങ്ങനെ അധികം ഒന്നും പോവാൻ പറ്റില്ല നമുക്ക് ഒര് എന്താ പറയുക ഒര് എ സി ഇട്ട് കൂടുതല് അങ്ങനെ പോവാൻ ഒന്നും പാടില്ല അപ്പം അങ്ങനെ ഒര് ചെറിയ പ്രശ്നം വരാൻ ചാൻസുണ്ട് ആ ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥലങ്ങള് ഏതൊക്കെ ആയിരുന്നു മിട്ടായി തെരുവ് മലപ്പുറം അങ്ങോട്ട് പോകേണ്ടി വരും അല്ലേ ഓക്കെ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ വേറെ ഡെസ്റ്റിനേഷൻ അങ്ങനെ ഒന്നും കാര്യങ്ങള് ഒന്നും ചെയ്തിട്ട് ഇല്ല നമുക്ക് ഇത്രേ ഉള്ളൂ അല്ലേ ഓക്കെ നമുക്ക് അപ്പോൾ എത്ര മണിക്ക് ഉള്ളില് ആണ് അവിടെ എത്തണ്ടേന്ന് അങ്ങനെ എന്തേലും ടൈമ് ഉണ്ടോ അവിടെ ആ ഇപ്പം അത് അടിവാരത്തിന്ന് മിട്ടായി തെരുവ് വരെ വൺ ഹവറിന് ഉള്ളില് എത്തി ഇരിക്കും ഓക്കെ പിന്നെ അവിടുന്ന് മലപ്പുറത്തേക്ക് പോകുമ്പം എങ്ങനെ ആണ് ടാക്സി ടാക്സീന്ന് കേറാൻ പറ്റും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് ആണ് എന്തായാലും സാറ് പറഞ്ഞ പോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പ് ഒന്നും പറയുന്നില്ല നമുക്ക് നോക്കാം ജസ്റ്റ് എന്തെങ്കിലും ഇത് ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം എന്തായാലും ട്രൈ ചെയ്യാം